ഞാന് അങ്ങനെ വലിയ പാട്ടുകാരനൊന്നുമല്ല എങ്കില്ക്കൂടിയും നമ്മുടെ പള്ളികളിൽ ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാലപിക്കുവാന് ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലെ പാട്ടുകള് പാടും അതുപോലെ തന്നെ വീടുകളിൽ പരിപാടി വീട്ടില് പരിപാടികളുടെ ഗെറ്റുഗേതര് ഒക്കെ ഉണ്ടെങ്കില് അതിൽ നമ്മൾ ആലപിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ടൂറ് പോവുമ്പോള് അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിരുന്ന് വട്ടം കൂടിയിരുന്ന് നൈറ്റ് സന്ധ്യകളിലും അല്ലാത്ത സമയത്ത് ഇങ്ങത്തെ ഇങ്ങനെ പാടും വലിയ അല്ലാത്തെ വലിയ വലിയ അവസരങ്ങളിലൊന്നും പാടാനായിട്ടൊന്നും താല്പ്പര്യമില്ല അല്ലാതെ ഇങ്ങനെയുള്ള പള്ളികളിൽ വലയ പൊതുവേദികളിലൊന്നും പാടിയിട്ടില്ല എങ്കിലും ഫാമിലി ഗെറ്റുഗേതര് അല്ലെങ്കില് ഒറ്റയ്ക്കിരിക്കുമ്പോള് പുഴയൊര തീരത്ത് പോയിരുന്ന് പാടാറുണ്ട് അല്ലാതിപ്പം കൂട്ടുകാരുമായിട്ട് ഉല്ലസിച്ച് ഉല്ലസിക്കാന് പോവുമ്പം ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോവുമ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാടും പിന്നെ പള്ളിയിൽ കൊയറ് കുട്ടികളെ പാട്ടു പഠിപ്പിക്കുമ്പോൾ സണ്ഡേ സ്കൂള് മറ്റുള്ളയിടത്തൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവരെ പാട്ടു പഠിപ്പിക്കുമ്പോൾ പാട്ടു പാടാറൊക്കെയുണ്ട് അതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞങ്ങൾ കൊച്ച് കൊച്ച് പരിപാടികളില് കൂടിയാണ് ഞങ്ങൾ പാട്ടു കൂടുതലായിട്ടിങ്ങനെ പാടാനായിട്ട് ഉദേശിക്കുന്നത് അതല്ലാതെ വലിയ ഗാനമേള അങ്ങനെയൊന്നും ഇതുവരെ പോയിട്ടില്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടാകുന്നോ അപ്പോൾ ഞങ്ങൾ പ്രാര്ത്ഥിക്കും പാട്ടു പാടും പള്ളിയിൽ ഭവനങ്ങളിൽ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് തന്നെ ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലൊക്കെ ടൂറ് പോവുമ്പോൾ ആ സന്ധ്യാവേളകളിൽ അങ്ങനെയുള്ളപ്പൊഴൊക്കെ തന്നെ പാടാനാണ് വളരെ താല്പ്പര്യമായിട്ടുള്ളത് പിന്നെ ചില സാഹചര്യങ്ങള് പതിവാണ് അല്ലാതെ വലിയ പാട്ടുകാരനോ ഒന്നുമല്ല വലിയ ഇത് ഓഹ് അങ്ങനെ വലിയ ഒത്തിരി ആള്ക്കാർ കൂടുന്ന സ്ഥലത്തു നിന്ന് പാടുന്ന വ്യക്തിയൊന്നുമല്ല ചെറിയ സ്ഥലങ്ങളില് കുട്ടികളെ പാട്ടു പഠിപ്പിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് ആക്ഷന് സോങ്ങുകൾ മോണോആക്റ്റ് രൂപത്തില് പാട്ടു പഠിപ്പിക്കുന്നു അങ്ങനെ ചെറിയെ ചെറിയ ഗ്രൂപ്പുകളിൽ പത്തു പേരടങ്ങുന്ന ഗ്രൂപ്പുകളിലൊക്കെ പാട്ടു പാടാനാണ് കൂടുതലായിട്ടും താല്പ്പര്യമുള്ളത് അങ്ങനെയാണ് പാടാറുമുള്ളത് താല്പ്പര്യം മാത്രമല്ല എന്നാലും പാടും ഒറ്റയ്ക്കിരിക്കുമ്പം ചിലപ്പം പാടാന് തോന്നിയിട്ടുണ്ട് ചില സോങ്ങുകള് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങള് തരുന്നതാണ് അതൊക്കെയാണ് കൂടുതലും പാടാറുള്ളത് പള്ളിയിലും പൊതുവായിട്ട് പള്ളിയിൽ ചര്ച്ചിന്റെ ആവിശ്യങ്ങള്ക്കായിട്ട് പാട്ടുകള് പാടും അതല്ലാതെ വലിയ പാട്ടുകള് അങ്ങനെ ഇപ്പം നമ്മക്കിഷ്ടം കുട്ടികളെയാണ് കൂടുതലും പാട്ടു പഠിപ്പിക്കാനായിട്ട് ആഗ്രഹമുള്ളൂ ചെറിയ ചെറിയ സോങ്ങുകള് ആക്ഷന് സോങ്ങുകള് മിമിക്രി സോങ്ങുകള് അങ്ങനെയുള്ള സോങ്ങുകള് പഠിപ്പിക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലാതെ വലിയ ഇത് പിന്നെ വീടുകളിലുള്ള പാട്ട് ഗ്രൂപ്പ് സോങ്ങല്ല വീടുകളിൽ ഞങ്ങൾ എന്താ പറയുക ഗെറ്റുഗെതറുണ്ടാകുമല്ലോ വീടുകളിൽ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരുംകൂടെ കൂടി പാടും അതുപോലെ സിംഗിള്സായിട്ട് പാടും പിന്നെ നമ്മൾ ടൂറ് പോകുമ്പോൾ ചുമ്മാ എല്ലാവരും കൂടെ വണ്ടികളിലിരുന്ന് പാടും അല്ലാതെ ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും പാടും അങ്ങനെ വലിയ ഒന്നുമില്ല ഒരു ചെറിയെ ഗ്രൂപ്പിലൊക്കെ പാടുവാനായിട്ടാണ് സാധാരണ ആഗ്രഹം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പാടും